ആ ആരായിരുന്നു അതേല്ലോ ആരായിരുന്നു വിളിക്കുന്നത് ആ ആണല്ലേ ആ നെല്ലിക്ക ഉണ്ട് ചേച്ചി ഈ സമയത്തിഷ്ടം പോലെ നെല്ലിക്ക ഉണ്ട് നെല്ലിക്കയുടെ സമയം ആണല്ലോ അല്ല നല്ല ഫ്രഷാണ് രാവിലെ പറിച്ചുകൊണ്ടു വന്നേക്കുന്നത് തന്നെയാണ് നമ്മുടെ നാട്ടിലിപ്പം ഒത്തിരി സ്ഥലത്തിപ്പം കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഇങ്ങോട്ട് തന്നെ പുറത്ത് തമിഴ്നാട്ടിൽ നിന്നൊന്നും വരുന്നതല്ല നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് ആ നാടന് നെല്ലിക്ക മതിയല്ലേ ഇച്ചിരി കയ്പ്പ് ഉണ്ട് എന്നേ ഉള്ളു പക്ഷെ നല്ലതാണ് ഉം

ഒരു കിലോ നെല്ലിക്കെയല്ലേ ചേച്ചി എങ്ങനെയാണ് ഇവിടെ വന്ന് മേടിക്കുവാണോ ചെയ്യുന്നത് തോപ്രാംകുടിയിലാണ് നമ്മുടെ കട ഉണ്ട് തോപ്രാംകുടി നമ്മുടെ കട ഉണ്ട് സമയം ഇല്ല ആ ഹോം ഡെലിവറി ഉണ്ട് പെരുന്തോട്ടിയിൽ എവിടെ ആയിട്ടാണ് നെല്ലിക്ക മാത്രം മതിയോ ഒരു കിലോ ആ ആ വരിക്കച്ചക്ക ഉണ്ട് ചക്കയുടെ സീസണല്ല ഇപ്പം ഈ പഴത്തിന്റെ സീസണാണല്ലോ ആണല്ലേ ആ ചക്ക എന്തോരം ഇടത്തരം ചക്കയൊക്കെ മതിയോ ആണല്ലേ മുഴുത്ത നമുക്കിപ്പം ഇടത്തരം സൈസിൽ ഉള്ളതാണ് ഇരിക്കുന്നത് ഒത്തിരി മുഴുത്ത ചക്ക വരവില്ല ആ ഒരു ചക്കയ്ക്ക് കിലോയ്ക്ക് ഇപ്പം നൂറ്റിയൻപത് രൂപ കിട്ടാനില്ലാത്ത സമയം ആയത് കൊണ്ട് ആ നെല്ലിക്കയ്ക്ക് നൂറ്റി ഇരുപത് രൂപ നല്ല സാധനമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം തമിഴ്നാട്ടിൽ നിന്നൊന്നും സാധനം വരുന്നില്ല ആ മധുരമുള്ളതാണ് അല്ലല്ല നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന നമ്മളിവിടെ കടയിലോട്ട് എടുക്കുന്നത് ഓ ഫ്രൂട്ട്സ് വെജിറ്റബിള്സ് എല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് നമ്മളെടുക്കുന്നത് അപ്പം നെല്ലിക്ക ഒരു കിലോ വേണം അല്ലേ പിന്നെ ചക്ക ആ ചക്ക വറക്കാന് വേണ്ടിയിട്ട് ചക്ക വേണോ അതെയോ പഴം മാത്രം മതിയോ പച്ച വറക്കാന് വേണ്ടിയിട്ട് ആ ആം ആ കൊടുത്ത് വിടാനുള്ള അതല്ലേ ആ അപ്പം നെല്ലിക്കയും വേണം അതുപോലെ തന്നെ ചക്കയും വേണം വേറെ എന്തേലും വേണോ ചേച്ചി ഇവിടെ ആപ്പിൾ ഓറഞ്ച് മുന്തിരി എല്ലാ സാധനവും ഉണ്ട് ഏത്തപ്പഴം ഉണ്ട് ഏത്തപ്പഴം നമ്മുടെ വയനാടന് കുല ഉണ്ട് അതുപോലെതന്നെ നമ്മുടെ ഇടുക്കിയിൽ ഉള്ളതും ഉണ്ട് ഏതാണ് വേണ്ടത് ഇടുക്കിയിലെ മതി ആ ആ ഏത്തയ്ക്ക എങ്ങനെ ആണ് പച്ച വേണോ അതുപോലെ തന്നെ പഴം വേണോ കിലോയ്ക്ക് നമുക്ക് പഴത്തിന് കിലോയ്ക്ക് അമ്പത്തിരണ്ട് രൂപയ്ക്കാണ് ഇപ്പം കൊടുക്കുന്നത് ആ ആ വില കൂടി ഇതൊന്നും ഇപ്പം അധികം കിട്ടുന്നില്ല അതുകൊണ്ട് ആ ആ പഴം രണ്ട് കിലോ വേണമല്ലെ ആ ചേച്ചി നമുക്ക് ഇവിടെ ഏത്തയ്ക്കയും നെല്ലിക്കയും ചക്കയും മാത്രമല്ല കേട്ടോ മാങ്ങയുടെ സീസണൊക്കെയാണ് മാങ്ങ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് മൂവാണ്ടനുണ്ട് കിളിച്ചുണ്ടനൊക്കെ വരുന്നുണ്ട് ആണോ

ഉം ആ നല്ല തണ്ണിമത്തനുണ്ട് നല്ല ഫ്രഷ് തണ്ണിമത്തനുണ്ട് മഞ്ഞ തണ്ണിമത്തനും ചുവപ്പും ഒക്കെയുണ്ട് തണ്ണിമത്തന് വേണോ തണ്ണിമത്തന് ഒരു കിലോയ്ക്ക് ഇരുപത് രൂപയൊക്കെ ആകത്തുള്ളൂ ആ ആ ഇപ്പം ഈ പറയുന്ന ആം അപ്പം നെല്ലിക്കയും നെല്ലിക്കയും ഏത്തപ്പഴവും ആ അതുപോലെതന്നെ ചക്കപ്പഴവും വേണം വറക്കാന് വേണ്ടിയിട്ട് പച്ചച്ചക്കയും വേണം

ആം കുഴപ്പമില്ല ചേച്ചി നല്ല ചക്കയാണ് ഇവിടൊത്തിരി ആള്ക്കാർ വന്ന് മേടിക്കുന്നതാണ് ആം നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയാണ് സാധനങ്ങളെത്തുന്നത് തോപ്രാംകുടിയിൽ ഒക്കെ ഒത്തിരി പേര് പ്ലാവൊക്കെ ഉള്ളവർ ഒത്തിരി പേരുണ്ട് അതുപോലെതന്നെ നെല്ലിക്കയാണേലും ഇപ്പം എല്ലാവരുടെയും വീട്ടിലും ഉണ്ട് ഇപ്പം നമുക്ക് ഒത്തിരി സാധനം ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് നല്ല ഫ്രഷായിട്ടുള്ള സാധനമാണ് ആ മൂത്തില്ല ഉം ആ ആ ഇപ്പം ഇടത്തരം ചക്കകളാണ് ചക്ക അത്രയും വലിപ്പം ആയിട്ടില്ല പക്ഷെ ഇടത്തരം ചക്കകളാണ് കൂടുതലും പിന്നെ ഇപ്പോഴാണെങ്കിലും ഹൈബ്രിഡിന്റെയൊക്കെ ചക്കകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതായത് വര്ഷം ഇല് ഒരു വര്ഷം രണ്ട് വര്ഷം കൊണ്ട് കായിക്കുന്ന ചക്കകളൊക്കെ ഉണ്ടല്ലോ വര്ഷം മുഴുവന് കായിക്കുന്ന ചക്കകളൊക്കെ ഉണ്ട് അതുകൂട്ടൊക്കെ നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ട് ആ അതൊക്കെ പുറത്ത് നിന്ന് വരുന്നുണ്ട് നമ്മുടെ ഇവിടെ ആള്ക്കാർ വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളു നെല്ലിയ്ക്ക ആണേലും നമുക്ക് എല്ലാ സമയം ഇപ്പം ഹൈബ്രിഡാണല്ലോ അതുപോലെ തന്നെ വാഴപ്പഴം ഒക്കെ ആണെങ്കിലും പുറത്ത് നിന്ന് കിട്ടുന്നത് വലിയ മെച്ചം ഇല്ലാത്തത് നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാന് പറ്റുന്നവരാണ് നമ്മുടെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നവരൊക്കെ അങ്ങനെ പ്രശ്നം ഒന്നും ഇല്ല അപ്പം പെരുന്തോട്ടിയിൽ എവിടെ ആയിട്ടാണ് വീട് ഇത് പെട്ടി ആപെയ്ക്ക് കൊടുത്തുവിട്ടേക്കാം ആ ചേച്ചി എങ്ങനെ ആണ് പൈസ എങ്ങനെ ആണ് ആ ആ ഈ ഫോണ് നമ്പറിൽ ചെയ്താൽ മതി കുഴപ്പമില്ല ആ ആ ഞാൻ അവിടെയാണ് അല്ലേ ആ എന്നാൽ ശരി ചേച്ചി കൊടുത്തേക്കാം കേട്ടോ ഓക്കെ